ഹലോ ക്യാബ് ഏജൻസി ആ ആ ഓക്കെ നമുക്ക് പിന്നെ കോഴിക്കോട് നിന്നാണേ വിളിക്കുന്നത് നമുക്ക് ഒരു എറണാകുളം വരെ പോവാൻ വേണ്ടിയായിരുന്നു അപ്പോൾ നമുക്ക് ഫോർ സീറ്റും സിക്സ് സീറ്റ് ഒക്കെ അവൈലബിൾ ആണോ വണ്ടി അത് എറണാ എറണാകുളം വരെ എത്ര റേറ്റ് ആവും

നിങ്ങളുടെ നിങ്ങളുടെ ഡ്രൈവറിൻ്റെ ഫീ എല്ലാം കൂടെ അല്ലേ ഫോർ സീറ്റർ ആവുമ്പോഴോ ഫോർ സീറ്റ് ഫോർ സീറ്റ് ആവുമ്പോഴോ ആ അത്രയേ ഉള്ളൂ അല്ലേ മ് മ് നമ്മൾ ഉറപ്പിച്ചിട്ടില്ല ചിലപ്പം ഇതിപ്പം നമ്മൾ നാല് പേരായിരിക്കും ഫാമിലി മാത്രം ആയിരിക്കും അല്ലെങ്കിൽ ഓരേ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവും നമ്മൾ അത് ഉറപ്പിച്ചിട്ടില്ല നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇതാക്കാം വെച്ചിട്ടായിരുന്നു അപ്പോൾ നമുക്ക് പോവേണ്ടത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സാറ്റർഡേ നൈറ്റ് പോവാമെന്ന് വെച്ചിട്ടാണ് അങ്ങനെയാവുമ്പോൾ ആ നോക്കാം ആ അങ്ങനെയാവുമ്പോൾ നമുക്ക് വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ഒന്നാമത് ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ അതുകൊണ്ട് ആ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോവാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് മ് അല്ലല്ലേ ആ ആ അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ഞാൻ കൺഫോം ആയിട്ട് പറയാം കേട്ടോ അത് കൺഫോം ആയിട്ടില്ല നമ്മൾ നാല് പേരാണ് എന്തായാലും നാല് പേരെന്തായാലും ഉണ്ടാവും മ് അപ്പം അങ്ങനെയാണ് അപ്പോൾ നമുക്ക് പോവേണ്ടത് സാറ്റർഡേ നൈറ്റ് ആണ് രാവിലെ എറണാകുളത്ത് എത്തില്ലേ അങ്ങനെ ആവുമ്പോൾ ആ ആ നമ്മൾ ഒരു എട്ട് മണിയൊക്കെ ആവുമ്പം ആ നമ്മൾ ഒരു എട്ട് മണി ആവുമ്പോൾ പോവാം എന്ന് വിചാരിച്ചിട്ടാണ് ആ അല്ല എട്ട് മണിയൊക്കെ ആവുമ്പോൾ പോവാമെന്ന് വെച്ചിട്ടാണ് ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് പ്രശ്നമില്ല ആ ഓക്കെ ആ ഓക്കെ ആ വണ്ടി ഞാൻ എത്ര പേരുണ്ട് എന്ന് ഞാനൊന്ന് വൈകുന്നേരം ഇൻഫോം ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യൂ